എനിക്ക് അങ്ങനെ ആദ്യം ഇഷ്ടം വായിച്ചപ്പോൾ ഇഷ്ടപ്പെടാണ്ട് തോന്നിയത് ബാല്യകാലസഖിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോവൽ ഒരു മലയാളം നോവൽ അതാണ് എനിക്ക് ആദ്യം വായിച്ചു തുടങ്ങിയപ്പം എനിക്കങ്ങനെ അങ്ങനെ ഇഷ്ടപെട്ടില്ല പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി വായിച്ചു നോക്കാം അങ്ങനെ വിചാരിച്ചു അങ്ങനെയാണ് വായിച്ചത് പിന്നെ പിന്നെ എനിക്ക് വൈ ഭയങ്കര ഇഷ്ടമായി അതിലെ കഥ ഒരു ബാല്യകാലത്തെ പ്രണയത്തെ പറ്റിയിട്ടുള്ള ഒരു കഥയാണല്ലോ പിന്നെ അവൾ അവർ വളർന്നു വലുതായി അങ്ങനെ അതിനെപ്പറ്റിയിട്ടുള്ള അവരുടെ ജീവിതത്തിലെ കഥ പറയുന്നതായത് കൊണ്ട് തന്നെ എനിക്ക് പിന്നെ അത് ഭയങ്കര ഇഷ്ടമായി ആദ്യം അങ്ങനെ വായിച്ചപ്പോൾ എന്താണ് ഒരു ഇഷ്ടമായില്ല അത് ഞാൻ നിർത്താം വായിക്കുന്നത് നിർത്താം എന്നു വിചാരിച്ചതാണ് പിന്നെ ഒന്ന് കുറച്ചുകൂടി വായിച്ച് നോക്കാം കഥയുടെ നമുക്ക് ഒരു ആദ്യത്തെ ഭാഗം വെച്ച് മാത്രം ഇതിനെ പറയാൻ വേണ്ടി പറ്റില്ലല്ലോ അതുകൊണ്ട് കുറച്ച് കൂടി ഒന്ന് വായിച്ച് നോക്കിയപ്പോൾ പിന്നെ കുറച്ച് കൂടി ഒന്ന് വായിച്ച് നോക്കി അങ്ങനെ രണ്ട് മൂന്ന് പേജുകളൊക്കെ അങ്ങോട്ട് വായിച്ച് വായിച്ച് എത്തിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അത് വായിച്ച് തീർക്കണം എന്ന് തോന്നി അങ്ങനെ മൊത്തമായിട്ട് അത് വായിക്കുകയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്കതിൽ എങ്ങനെയാണ് ഇഷ്ടമായത് വെച്ചാൽ ബാല്യകാലത്തെ ഒരു പ്രണയം അവർ ബഷീറിൻ്റെയും സുഹറയുടെയും ഒരു അല്ല മജീദിൻ്റെയും സുഹറയുടെയും ഒരു പ്രണയത്തെ പറ്റി പറയുന്ന ഒരു കഥ അതിൽ എന്തോ ഒരു രസം ഉണ്ടായിരുന്നു പക്ഷേങ്കി പ്രണയത്തെ പറ്റിയിട്ടും അവരുടെ അവരുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസത്തെപ്പറ്റിയിട്ടൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ എനിക്കെന്തോ ഭയങ്കര ഒരു വായിക്കണം എന്ന് ഒരിഷ്ടം തോന്നി